എൻ്റെ പ്രദേശത്ത് ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലങ്ങളുണ്ട് അതായത് പാർക്ക് സൂ തൃപ്പൂണിത്തറ മ്യൂസിയം ഇവരൊക്കെ അവർ കാണാൻ വരാറുണ്ട് അത് കൂടാതെ എൻ്റെ നാട്ടിൽ തന്നെ ചെറിയൊരു റിസോർട്ട് കൂടിയുണ്ട് ദി വില്ലേജ് എന്ന പേരിലാണ് ആ റിസോർട്ട് അറിയപ്പെടുന്നത് പല ഭാഗത്ത് നിന്നും വരുന്ന ആൾക്കാർ അവിടെ താമസിക്കുകയും ചുറ്റും മറ്റുള്ള സ്ഥലങ്ങൾ എല്ലാം കാണുകയും ചെയ്യാറുണ്ട് അ സ്ഥലം വളരെ മനോഹരവുമാണ് അത് പോലെന്നെ വെള്ളവും മണ്ണും പുല്ലും തണുപ്പും എല്ലാം ഒത്തു ചേർന്ന ഒരു സ്ഥലമാണ് വില്ലേജ്